നമ്മുടെ ഇപ്പോഴത്തെക്കാലത്ത് ഏറ്റവും കൂടുതലും നേരിടുന്ന പ്രശ്നമാണ് സ്ത്രീകൾക്ക് നിത്യേന ജോലി അവർക്ക് എവിടെച്ചെന്നാലും സംസാരിക്കാനുള്ള അവകാശമുണ്ടൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇപ്പം നേരിടുന്നുണ്ട് സ്ത്രീകളല്ലെ അവർ ഒരുപടി ആണുങ്ങളേക്കാൾ ഒരുപടി താഴ്ന്ന് നിൽക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ലോകം പോകുന്നത് ഇപ്പോഴത്തെ ലോകമല്ല ഇതിനും കുറച്ച് മുമ്പുള്ള കാലഘട്ടത്തിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊഴത്തെ ലോകത്തങ്ങനെയല്ല ഇപ്പോൾ ആണും പെണ്ണും തുല്യതയാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യ രീതിയിലുള്ള ഇതാണ് എന്നു വെച്ചാൽ എവിടെച്ചെന്നാലും ആണുങ്ങളെപ്പോലെ തന്നെ പെണ്ണുങ്ങൾക്കും ഒരു അവസരങ്ങളുണ്ട് ഇപ്പോൾ എവിടെച്ചെന്നാലും എവിടെ ഇരിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് ആണുങ്ങൾക്ക് കുറച്ച് ബഹുമാനം കൊടുക്കുക എന്നുള്ളതുകൊണ്ട് പിന്നെ മെയിൻ കാര്യം പിന്നെ നമുക്ക് വരുന്നത് സ്ത്രീകൾ നിത്യേന നേരിടും വെല്ലുവിളികൾ കുറേ കാര്യങ്ങളുണ്ട് എന്നു വച്ചാൽ അവൾ പെണ്ണല്ലെ അവളെക്കൊണ്ടത് ചെയ്യാൻ പറ്റുമോ അവളെക്കൊണ്ടിത് ചെയ്യാൻ പറ്റുമോ ആ എനിക്ക് എനക്കൊരു പുരുഷൻ അല്ലെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നു വച്ചാൽ ഒരു അങ്ങനെയൊരു താരതമ്യം ഇപ്പം ഇനി വേണ്ട എന്നു വച്ചാൽ എവിടെച്ചെന്നാലും സ്ത്രീകൾക്ക് തുല്യ അവസരമാണ് തുല്യ അവസരമാണ് എവിടെച്ചെന്ന് ജോലിക്കായാലും എന്ത് കാര്യമായാലും ഒരു സ്ഥലത്ത് ചെന്നാലും അയാൾ എവിടെച്ചെന്ന് സംസാരിക്കാനും എല്ലാ കാര്യത്തിനും സ്ത്രീകൾക്ക് തുല്യ അവസരം ഉള്ളതാണ്